ആ ചേട്ടാ ഞാനേ എനിക്ക് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഊട്ടിയിൽ അപ്പോൾ അവിടെ നിങ്ങളുടെ വണ്ടി ഉണ്ടാകുമൊ ഒരു ഫാമിലിയായിട്ട് പോകാനാണ് ഒരു ആറ് ഏഴ് പേര് ഉണ്ടാവും എനിക്ക് പതിനെട്ടാം തീയതി പോകാൻ വേണ്ടിട്ടാണ് ആണല്ലെ

ഞാൻ ഇപ്പോൾ ഡേ ടൈമില് പോകുന്നത് നല്ലതായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് അവിടെ പോയീന്നു പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റുമോ ആണല്ലെ നമുക്ക് ഫുഡ് ഒക്കെ എങ്ങനെയാ അവിടുത്തെ നല്ല ഫുഡ് ആയിരിക്കുമോ അതോ അതെ അല്ലേ അതെല്ലേ ഒക്കെ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ ഒക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അവിടെ കാര്യങ്ങൾ ഒക്കെ ആ അതൊക്കെ

അതെല്ലെ ഒക്കെ നമുക്ക് ഇപ്പോൾ ഇതിലൊക്കെ കയറുകയാണെന്ന് ഉണ്ടെങ്കിൽ ടൈം കാര്യങ്ങളൊക്കെ രാവിലെ കയറിയാൽ അപ്പോൾ തന്നെ ഇറങ്ങാൻ പറ്റുമൊ എപ്പോഴാണ് ഇറങ്ങാൻ പറ്റുക അതിൻ്റെ ഇതൊക്കെ ആ ആറ് ആൾ ഉണ്ടാവും ഫാമിലിയായിട്ട് വരാനാ ആ ഉണ്ട് ഉണ്ട് അതേല്ലേ ആ ഒക്കെ അപ്പോൾ നമുക്ക് കാണുന്നകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം കാണാനുള്ള ടൈം ഒക്കെ ഉണ്ടാവില്ലേ അതേ നമുക്ക് എന്നാൽ അങ്ങനെ ചെയ്യാം നമുക്ക് ഇപ്പോൾ പാക്കേജിനു എന്ത് റേറ്റ് വരും നിങ്ങളുടെ മ് ഇല്ലാലെ ട്രാവെൽ ഒക്കെ ഉൾപ്പെടില്ലെ വണ്ടിയൊക്കെ ഫുഡും ഇതിൽ തന്നെ പെടില്ലേ എല്ലാം ആ ഒക്കെ ഒക്കെ നമുക്ക് ഇത് പോകാം നമുക്ക് നമ്മൾ പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കാം ഒക്കെ അപ്പോൾ ഓക്കേ ഓക്കേ താങ്ക്യൂ